എനിക്ക് വളർത്തുമൃഗങ്ങളിൽ പശുവിനെ വളരെ ഇഷ്ടമാണ് പശുവിനെ വളർത്തികഴിഞ്ഞാൽ നമുക്ക് വളരെ ആവശ്യമാണ് ഉപകാരമാണ് അതിനെ കൊണ്ട് പാൽ കിട്ടും ചാണകം കിട്ടും ചാണകമാണെങ്കിൽ കൃഷിക്കുപയോഗിക്കാം പാലാണെങ്കിൽ നമുക്ക് പാൽ കുടിക്കാനുപയോഗിക്കാം ചായ വക്കാൻ കുട്ടികൾക്ക് കൊടുക്കാൻ എല്ലാം നമുക്ക് പശുവിനെ വളർത്തുകാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപകാരമാണ് പശുവിൻ്റെ മൂത്രം കൊണ്ട് പോയി ചെടിക്കൊഴിക്കാം പിന്നെ എനിക്കിഷ്ട്മില്ലാത്തത് പൂച്ചെനെയാണു പൂച്ച വന്നിട്ട് അകത്ത് കയറി നിരങ്ങി നടക്കുവോം അങ്ങനെ ഷീറ്റിലെല്ലാം കിടന്ന് കഴിഞ്ഞാൽ വെറും രോമാന്ന് അത് പാറി എനിക്ക് മൂക്കിലടിച്ച് കഴിഞ്ഞാൽ തന്നെ തുമ്മൽ വരുന്നു ഞാൻ ഒരു പൂച്ചേനെ ഇങ്ങ് അകത്ത് കയറ്റില്ല ഇല്ല എന്നാലൂം നമ്മളിപ്പം ഡോറെല്ലാം തുറന്ന് പോയിനെങ്കിലും പൂച്ച കയറി അകത്തെല്ലാം കയറി സോഫേലെല്ലാം കിടന്നിട്ട് കാണണ്ട ഇതാന്ന് ഞാൻ അതുകൊണ്ട് പൂച്ചേനേ അധികോം ഞാൻ ഇങ്ങോട്ട് അടുപ്പിക്കലേ ഇല്ല അതാണെങ്കിൽ വന്നിട്ട് മോളിലെല്ലാം കയറി ചില സമയോം നമ്മള കണ്ണ് തെറ്റിനെങ്കിൽ ഗർഭിണികളാണെങ്കിൽ നാല് പൂച്ചേനെല്ലാം പ്രസവിച്ചിട്ടാ ഇവിടുന്ന് പോകുന്നത് ഞാൻ എന്നിട്ട് അതിനെ എടുത്ത് കൊണ്ട് പോയി പുറത്ത് കളയലാണ് എനിക്ക് അത് ശരിയാകുന്നേയില്ല അന്ന് മീൻ മുറിക്കുക മീൻ വാങ്ങാൻ പോയാലാണ് അവിടെ വന്ന് ശല്യം ചെയ്യും മീൻ മുറിക്കുവാനാണെങ്കിൽ വിടൂല്ലാ അങ്ങനെ ബുദ്ധിമുട്ടാണ് അതിനെ കൊണ്ട് അത് പിന്നെ ചില സമയം നമ്മൾ ഗ്രിൽസെല്ലാം തുറന്നിടുകാണെങ്കിൽ വന്നിട്ട് കട്ട് തിന്നുവോം ചെയ്യും അതുകൊണ്ട് എനിക്ക് പൂച്ചേനെ അങ്ങനെ ഇഷ്ടമേ അല്ല എന്ത് പശൂനെയാന്ന് കൂടുതലിഷ്ടം പശൂനെയാണെങ്കിൽ എനിക്ക് പുല്ല് പറിക്കാനും എല്ലാം നല്ല ഇഷ്ടമാണ് പാൽ കുടിക്കോം പിന്നെ കുട്ടികൾക്ക് കൊടുക്കാം എല്ലാം ചെയ്യും അതുകൊണ്ട് പശൂനോടാണ് ഇഷ്ട്ടം പൂച്ചേനെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല